പ്രിയപ്പെട്ടൊരു കായികയിനം എന്നു പറയുന്നത് ഫുഡ്ബോള് തന്നെയാണ് ഫുഡ്ബോള് നമുക്ക് എന്താ പറയുക ചെറുപ്പം തൊട്ടേ കളിക്കാനൊരുപാട് ഇഷ്ടമാണ് പിന്നെയത് കാണാനും കളിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ മാച്ച് ആൻറ് ഗെയിമുകൾ അവരു തമ്മിലുള്ള മത്സരങ്ങൾ ഇതൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫുഡ്ബോളിലെ കായിക താരങ്ങളെന്ന് പറയുന്നത് എംമ്പാപ്പെ നെയ്മർ അങ്ങനെ തുടങ്ങി ഒരുപാട് പേരെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ